അതായത് ഞാൻ എൻ്റെ തന്നെയായിട്ടുള്ള അതായതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനായൊരു വെബ്സൈറ്റ് ബിൽഡറോ അല്ലെങ്കിൽ കോൺടാക്ട് മാനേജ്മെൻറ് സിസ്റ്റം എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഉണ്ടാക്കാനറിയില്ലായിരുന്നു കാരണം എനിക്ക് കംപ്യൂട്ടറിലൊന്നും വലിയ പിടിത്തം ഉണ്ടായിരുന്നില്ല ഞാൻ കംപ്യൂട്ടർ ക്ലാസ് അങ്ങനത്തെ കാര്യത്തിൽ ഒന്നും പോകാറും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കങ്ങനെ അതിനെ കുറിച്ചൊന്നും വലിയ പിടിത്തമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വെബ്സൈറ്റ് ബിൽഡറെ ആയിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത് അവരാണ് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുതന്നത്